വിവാഹം എന്ന് കേൾക്കുമ്പോള്ത്തന്നെ ആളുകളുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കയറിവരുന്ന ഒരു കാര്യമാണ് സ്ത്രീധനമെന്നുള്ളത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്നുണ്ടെങ്കിൽത്തന്നെയും ഇന്നും ഇന്നത്തെ കാലഘട്ടത്തിലും സ്ത്രീധനം കൊടുക്കുകയെന്നുള്ളത് പേരെൻസ്സ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്

എന്താണ് പിന്നെ കാറുകള് വലിയ വലിയ വീടുകള് ഡ്രസ്സുകള് ഇങ്ങനെ എന്താണ് പുറത്തേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റുകള് ഇതെല്ലാം സമ്മാനങ്ങളായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ സമ്മാനങ്ങളായിട്ട് ഇത് പിന്നെ വിളിച്ച ആളുകള് കൊണ്ടുവരുന്നത് അതായത് ഗസ്റ്റുകള് കൊണ്ടുവരുന്ന ഒരുപാട് സാധനങ്ങള് അങ്ങനെ എല്ലാം എല്ലാം തന്നെ വിവാഹത്തിന് പെൺകുട്ടികൾക്ക് കൊടുത്തുവിടാറുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലല്ലെങ്കിൽക്കൂടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളും അതാഗ്രഹിക്കുന്നുണ്ട് പെൺകുട്ടികള് അത് ആവശ്യമായിട്ട് വീട്ടുകാരോട് തന്നെ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഈ സമയങ്ങളില് ചില ആളുകള് സ്ത്രീധനം ആവശ്യപ്പെടാതെ അവരുടെ ജോലികൾ നോക്കിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന പെൺകുട്ടികളും ഇന്നുണ്ട് പേരെൻസിനെ കൂടുതലധികം കഷ്ടപ്പെടുത്താതെ അവനവന്റെ കഷ്ടപ്പാടില് തന്നെ വിവാഹം നടത്താനും അതുവഴി ആ സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നതിനും ആഗ്രഹിക്കുന്ന കുട്ടികളുമുണ്ട് എങ്കിൽത്തന്നെ നമ്മുടെ സമൂഹത്തില് പഴയ കാലത്തിലാണെങ്കിൽ അത് നിലനിന്നിരുന്ന സമ്പ്രദായമാണ് സ്ത്രീധനമെന്നുള്ളത് അതെങ്ങനെയാണെങ്കിലും കുട്ടികള്ക്ക് പെൺകുട്ടികൾക്ക് കൊടുത്തുവിടുകയെന്നുള്ളത് പേരെൻസിൻ്റെ ഒരു ബാധ്യതയായി കാണുന്നതും കാണുന്നവരുമുണ്ട് പെൺകുട്ടികൾക്ക് അതിനവർക്ക് ജീവിക്കുന്നതിനുള്ള ചുറ്റുപാടുകളൊരുക്കി കൊടുക്കുന്നതിന് പേരൻസ് തന്നെ മുൻകൈയെടുത്ത് അതിനവർക്ക് വേണ്ട സൗകര്യങ്ങളും സമ്മാനങ്ങളുമെല്ലാം ഒരുക്കി കൊടുക്കാനായിട്ട് ഇന്നത്തെക്കാലത്തും പേരൻസ്സ് ശ്രമിക്കാറുണ്ട് സ്ത്രീധനം എന്ന പേരിലല്ലെങ്കിൽക്കൂടെ പെൺകുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന സ്ഥലങ്ങളും സ്വർണ്ണാഭരണങ്ങളും എന്താണ് കാറുകളെല്ലാം നൽകി ഇന്നും പേരെൻസ്സ് സ്ത്രീധനം എന്നൊരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പേരെൻസ്സുമുണ്ട് അത് സമൂഹത്തിന് നല്ലതല്ല എങ്കിൽക്കൂടി വിവാഹം കഴിഞ്ഞുപോകുന്ന പെൺകുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതൊരു നാട്ടുനടപ്പെന്ന രീതിയനുസരിച്ച് പെൺകുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് പേരെൻസ്സ് പെൺകുട്ടികളെ പറഞ്ഞുവിടുന്നത് അതിൽക്കൂടി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഗസ്റ്റുകള് കൊണ്ടുവരുന്ന സമ്മാനങ്ങളും എല്ലാം കിട്ടുന്നത് പെൺകുട്ടികൾക്ക് നൽകി കൊടുത്തുവിടാറുണ്ട് ഡ്രസ്സുകള് പെൺകുട്ടികളുടെ ഗിഫ്റ്റുകള് ഗിഫ്റ്റുകള് കൊണ്ടുവരേണ്ടെന്നുണ്ടെങ്കില്ത്തന്നെയും എല്ലാവരും കൊണ്ടുവരുന്ന നല്ല രീതിയിലുള്ള ഗിഫ്റ്റുകളെല്ലാം പെൺകുട്ടികൾക്ക് കൊടുത്തു